ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ചോദ്യം സാങ്കേതിക വിദ്യ ഉദാഹരണത്തിന് സമൂഹ മാധ്യമം ഓൺലൈൻ ഓൺലൈൻ ആയുള്ള നൃത്ത പരിശീലനങ്ങൾ എന്നിവ എങ്ങനെയാണ് നൃത്ത വ്യവസായത്തെ സ്വാധീനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പുതിയ ലോകത്ത് അതായത് ടെക്നോളജിയും ഇലക്ട്രോണിക് ഡിവൈസസുമൊക്കെ ഉള്ള ഈ ഒരു പുതിയ ലോകത്ത് പ്രത്യേകിച്ചു നമ്മൾ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ കൊറോണ കാലത്ത് ഒക്കെ നമ്മൾ കണ്ടതാണ് ഓൺലൈൻ ആയിട്ടാണ് എല്ലാവരും

കുറേ കാര്യങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നൃത്തം അല്ലെങ്കിൽ ഡാൻസൊക്കെ നമ്മൾ ഓൺലൈനായി കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ നൃത്ത വ്യവസായത്തെ ഇത് വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ ഉള്ളത് കാണാനായിട്ട് സാധിക്കും പുറം രാജ്യങ്ങളിലുള്ള വ്യക്തികൾ കേരളത്തിലെ പല നൃത്ത രൂപങ്ങൾ പഠിക്കാനായിട്ട് ഓൺലൈൻ ടെക്നോളജികൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റഫോംമിൽ ആണ് അവർ അത് പഠി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ അത് പഠിക്കുന്നത് കേരളത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് പുറം രാജ്യത്തുള്ള നൃത്തം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ഓൺലൈനായി ഫോണിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ അവരെ വീഡിയോ കോൾ ചെയ്ത് അവരെ നേരിട്ട് കണ്ട് അവർ നൃത്തം പഠിക്കുന്നു ഇത് നൃത്ത വ്യവസായത്തെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇതിലൂടെ പല വ്യക്തികൾക്കും നൃത്തം പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വലിയ വലിയ ഉപകാരപ്രദമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം പുറം രാജ്യങ്ങളിലുള്ള വ്യക്തികൾക്കും അവരുടെ രാജ്യത്തെ രാജ്യത്തെ നൃത്ത രുപവും അല്ലാത്ത നൃത്ത രൂപങ്ങളും ഓൺലൈനായി പഠിക്കുവാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ വേറെ രാജ്യത്ത് നിന്ന് ഇവിടെ കേരളത്തിൽ പഠിച്ച ഒരു ഗുരുവിൽ നിന്ന് വേറെ രാജ്യത്ത് നിന്നുള്ള വ്യക്തികൾ ഭാരതനാട്യം പിന്നേ കുച്ചിപ്പുടി അല്ലെങ്കിൽ മോഹിനിയാട്ടം ഒക്കെ പഠിക്കുന്നത് കാണുമ്പോൾ ഈ ഒരു നൃത്ത രൂപങ്ങളെ നിലനിർത്തുവാനും ഇവ നമുക്ക് മറ്റുള്ള വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട്